ആ ഒന്നുമില്ല ഒരു സ്വർണം വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് എവിടെ നിന്ന് വാങ്ങി മാല വാങ്ങിക്കാൻ മാല വാങ്ങിക്കാൻ ആ ഒരു മൂന്ന് പവൻ്റെ മാല വാങ്ങിക്കാൻ എവിടെ നല്ല ഷോപ്പ് ഉള്ളത് ഇതുവരെ തീരുമാനിച്ചില്ല ആ ചോദിച്ചിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കാ ആ ഭീമയിൽ നിന്ന് നല്ലത് ഉണ്ടാവുമോ പുതിയ ഒരു ഷോപ്പല്ലേ

അതെയോ ആ ബിന്ദുന്ന് ഞാൻ വാങ്ങിച്ചിനി കോയിൻ ഒരെണ്ണം വാങ്ങിച്ചു

ആ ആ ആ ആ ആ ആ അപ്പോൾ അങ്ങോട്ട് തന്നെ പോവാം അല്ലേ നല്ലോണം പൈസ ആകുമോ ഇപ്പോൾ നല്ലോണം ഉണ്ടോ ആ അപ്പോൾ നല്ലതിന് നല്ലോണം ആവും ആ ഒന്നര ലക്ഷത്തിൽ കൂടുതലാവും അതെയോ രണ്ട് പവൻ ആ മൂന്ന് പവൻ ആ അ ആ എന്നാൽ ആട്ന്ന് ആ ഒരു നെക്ളേസ് വാങ്ങണം എന്തെങ്കിലും മൂന്ന് പവൻ്റെ ആ അപ്പോൾ ബിന്ദുവിലേക്ക് തന്നെ പോവാം അല്ലേ ആ ആ ആ നിങ്ങൾക്കെന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ ആ ആ ഓ അപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാം പോവാം ആ അതെയോ ആ ആ പിന്നെ റിങ്ങ്സ് ഇതു നോക്കാം അവിടെ പോയ ശേഷം ആ ഇന്ന് വൈകുന്നേരം പോവാം ആ ബൈ ആ പിന്നെ വിളിക്കാം